മാമ എർത്തിൻ്റെ ഫെയ്സ് ക്രീം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും എല്ലാ രീതിയിലുള്ള സ്കിന്നിനും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഒരു രീതിയിലുള്ള ഡാമേജ് ഇത് നമ്മളെ സ്കിന്നിന് തരത്തില്ല ഏതുതരം ഏത് രീതിയിലുള്ള സ്കിന്നിന് ആണെങ്കിലും ഇത് നല്ല യൂസ്ഫുൾ ആണ് അതായത് നമ്മൾ ഇപ്പോൾ വെയിലത്ത് ഇറങ്ങിയാലും മഴയത്ത് ഇറങ്ങിയാലും ഒരു രീതിയിലുള്ള ഡാമേജ്യും നമ്മുടെ സ്കിന്നിന് ഇത് തരുന്നില്ല എല്ലാവ എല്ലാ രീ എല്ലാ സ്കിന്നിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയാണ് കാരണം നല്ല ഫെയ്സ്വാഷ് ആണ് ഒരു രീതിയിലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാൻ അത് നമ്മളുടെ സ്കിന്നിന് ഡാമേജ് തരില്ല എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ അതിന് അറിയുകയുള്ളൂ അതായത് നമ്മളുടെ സ്കിൻ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത് സജസ്റ്റ് ചെയ്യുകയാണ് ഒരു രീതിയിലുള്ള ഡാമേജ് ഒരു സ്കിന്നിന് ഉണ്ടാവുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെയ്സ് ഫെയ്സ്ക്രീം ആണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഏത് കാലാവസ്ഥയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വിറ്റാമിൻ സി ഒക്കെ തരുന്നുണ്ട് അപ്പൊൾ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്